ഹലോ ആരാണ് അ അതെയതെ ആ നിങ്ങൾക്കെന്താണ് ചെയ്ത് തരേണ്ടത് നിങ്ങൾ നിങ്ങളെത്ര പേരുണ്ടാവും ആ അഞ്ച് പേരാണെങ്കിൽ നമുക്ക് കാറ് മതിയല്ലൊ കാറന്ന് നിങ്ങൾക്ക് അഞ്ച് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്ത് വരാം ആ എ അതേഴാണെങ്കിലിനി നമ്മൾ വണ്ടി മാറ്റേണ്ടി വരും അപ്പം ഏഴ് പേരുണ്ടെങ്കിൽ ഒരു വെച്ചിട്ട് ആൾക്കാരക്കെ അനുസരിച്ച് നമ്മളെടുക്കുന്ന വണ്ടിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് അതിൻ്റെ കാശിന് വ്യത്യാസമുണ്ട് ആ കാറാണെങ്കിൽ ഞങ്ങളുടെ ആ കിലോമീറ്റർന് മുപ്പത് രൂപ വെച്ച് വരും അക്കൊമഡേഷൻ ഞങ്ങൾക്ക് ഏർപ്പ് ഏർപ്പാടാക്കണേന് കുഴപ്പമൊന്നുവില്ല ഞങ്ങൾ നിങ്ങൾ പറയണ സ്റ്റാൻഡേർഡിലുള്ള അവിടെ ഏർപ്പാടാക്കിത്തരാം അതിനൊന്നും പ്രശ്നമൊന്നുവില്ല നമുക്ക് എന്ത് വേണോന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ മതി പക്ഷേ ഞങ്ങൾക്ക് പാക്കിങ് ആയിട്ട് പാക്കേജായിട്ട് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏഴ് പേർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ പാക്കേജ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല ആ അല്ല അങ്ങനല്ല നിങ്ങൾ എവിടുന്നാണൊ നിങ്ങൾ വരുന്നത് അവിടം മുതൽ ഞങ്ങൾ ഏറ്റെടുക്കണം എങ്കിൽ ഞ ഏറ്റെടുക്കും ഞങ്ങൾ വണ്ടി അവിടുന്ന് അവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ട് വരും നിങ്ങൾ അതൊക്കെ അതല്ല നിങ്ങളിവിടെ എത്തിയതിന് ശേഷം മതിയെങ്കിൽ അങ്ങനെ ചെയ്യും അത് വേണമെങ്കിൽ ട്രെ ട്രെയിനിൽ പോരാനുള്ളതേ ഉള്ളു അതെ അതെയതെയതെയതെ നിങ്ങൾ ആ നിങ്ങൾക്ക് ഞങ്ങൾ എത്രത്തോളം സേവനം ചെയ്യുന്നൊ അതിനനുസരിച്ച് ഞങ്ങൾ ചാർജ് ചെയ്യും

ആ അങ്ങനെയാവട്ടെ അങ്ങനെയാവട്ടെ ശരി ഓക്കെ